ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ള ശബ്ദം നമ്മൾ മനോഹരമായി അതു സംരക്ഷിക്കുക ഉപയോഗിക്കുക ചിലർക്ക് തൊണ്ടയ്ക്കുണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങൾ മൂലവും തൈറോയിഡ് മൂലവും അണുബാധ മൂലവും ശബ്ദത്തിന് കേടുപാടുകൾ സംഭവിക്കാറുണ്ട് അപ്പോൾ അവർ അത് തക്കതായ സമയത്ത് ചികിൽസിക്കുകയും വേണ്ട പൊടിക്കൈകളൊക്കെ ചെയ്യണം എന്നു വെച്ചാൽ ചൂടുവെള്ളം ഇടക്കിടയ്ക്ക് കുടിക്കുന്നത് നമ്മുടെ ശബ്ദത്തെ ഒരു പരിധി വരെ നമുക്ക് സംരക്ഷിക്കാനാകും പിന്നെ തേൻ കുടിക്കുന്നത് അത് നല്ലതാണ് ശബ്ദത്തെ മനോഹരമാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ശബ്ദം നമ്മളിപ്പോൾ ഒരുപാട് സംസാരിക്കുകയും ഉറക്കെ പാടുകയും നമ്മൾ നമ്മൾ കൺട്രോളില്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സംസാരത്തിന് ക്ഷീണവും ആ ആ അല്ലെങ്കിൽ ഇടർച്ചയും ആ പിന്നെ അടപ്പും അത്യാവശ്യം പിന്നെ തൊണ്ടയടപ്പും ഒച്ചയടപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നാമെന്താണ് ചെയ്യേണ്ടത് നാമത് തിളപ്പിച്ചാറ്റിയ ചെറു ചൂടുവെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ മഞ്ഞ് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ അൽപ്പം മഞ്ഞൾപ്പൊടിയിട്ട് കുടിക്കുകയോ ആ നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഗാർഗിള് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ കുരുമുളക് ഇടയ്ക്ക് ഓരോ കുരുമുളകൊക്കെ ചേർന്ന് വെയ്ക്കുമ്പോൾ നമുക്കാ തൊണ്ടക്കത്തെ അസ്വസ്ഥതയൊക്കെ നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ സഹായിക്കും ഇപ്പം പലപ്പോഴും പലരും നേരിടുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് ഒന്ന് പാടുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ തൊണ്ടയിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് അസ്വസ്ഥത ഇൻഫെക്ഷൻ മൂലമൊക്കെ നമുക്ക് സംസാരിക്കാൻ തന്നെ പ്രയാസമായിരിക്കും അല്ലെങ്കിൽ ഒന്ന് പാടുന്നവർക്കാണെങ്കിൽ പാടാൻ തന്നെ വളരെയേറെ വിഷമവും ഒക്കെയായിരിക്കും അപ്പം നാമെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീ ഹോസ്പിറ്റലിലെങ്ങും പോവണമെന്നില്ല നമക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടുകളിൽ തന്നെ വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കീ തൊണ്ടയ്ക്കൊക്കെ അസ്വസ്ഥതയൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഉപ്പു വെള്ളത്തിൽ ഗാർഗിളിക്കുക ഒരു പരിധി വരെ നമുക്ക് തൊണ്ടക്ക് ഇൻഫെക്ഷൻ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സഹായിക്കും അപ്പോൾ നമ്മൾ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നമ്മൾ വളരെ കുറച്ച് ശബ്ദം നമ്മൾ നമുക്കൊരു ഇതുണ്ട് ശബ്ദം നമുക്ക് എത്രയും നമ്മൾ ഇതിൽ സംസാരിക്കാൻ പറ്റും എന്ന് നമുക്ക് തന്നെയറിയാം അതിൽ കൂടുതൽ സൗണ്ടോ ഒച്ചയോ എടുക്കുക ചെയ്യരുത് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്ട്രെസ്സ് അനുഭവപ്പെടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആ മുമ്പോട്ട് നമുക്ക് എന്തുവാ സംസാരിച്ച് അല്ലേൽ പാട്ടൊക്കെ പാടി മുമ്പോട്ടൊക്കെ നമുക്ക് പോവാം ഇതൊന്നുമല്ലെങ്കിൽ ഒരുപാടുച്ചത്തിൽ കിടന്ന് സംസാരിക്കുകയും മറ്റുള്ളവർ കയർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് തൊണ്ടയ്ക്ക് ഓ ഇടർച്ച ഉണ്ടാവുകയും നമുക്കത് മൂലം ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് നാം ശബ്ദമൊക്കെ വളരെ താഴ്മയായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ സൗണ്ട് ഒച്ച കുറച്ച് സംസാരിക്കുകയും ചൂടുവെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പരിധി വരെ ഇത് നമുക്ക് നമ്മുടെ തൊണ്ട സംരക്ഷിക്കാൻ നമുക്ക് പറ്റും നമ്മുടെ സൗണ്ട് പിന്നെ തണുത്ത ആഹാര സാധനങ്ങൾ ആ പരമാവധി ഒഴിവാക്കുക ഇപ്പോൾ തണുത്ത വെള്ളം കുടിക്കുക ഐസ് ക്രീം കഴിക്കുക പിന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ തണുപ്പോട് തന്നെ സാധനങ്ങളെടുത്ത് കഴിക്കാതിരിക്കുക കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ് അഥവാ അങ്ങനെ നമ്മൾ ഒരു ഐസ്ക്രീമോ എന്തേലും വെള്ളമോ കുടിക്കുകയോ എങ്ങാനുമാണെങ്കിൽ നമ്മളുറപ്പായിട്ടും നമ്മൾ ഉപ്പുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളം ഒരുപാടില്ല ഒരു മീഡിയം ചൂട് എന്നിട്ടതിൽ അൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം ഗാർഗിള് ചെയ്യുക ഗാർഗിള് ചെയ്യുമ്പം നമുക്ക് അതൊരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ രോഗം ഭേദമാക്കാൻ സഹായിക്കും അതുവഴി നല്ല ശബ്ദത്തിനുടമകളാവുകയും ചെയ്യും ഇപ്പം ചിലവർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് സംസാരിക്കുകയാണെങ്കിൽ തൊണ്ടയ്ക്ക് കഫം വരുക പിന്നെ ഇടർച്ചയുണ്ടാവുക ശബ്ദത്തിനിത് വരുക ഇതൊക്കെ ഓരോ ഓരോരുത്തർക്കോരോ അസുഖങ്ങൾ മൂലമാണത് പക്ഷേ നമുക്ക് തന്നെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും നമുക്ക് തന്നെ അത് എന്നാ പരിഹരിക്കാൻ പറ്റുന്നതാണ് നമ്മളത് നോക്കാതെയും കാണാത്തതും കൊണ്ടാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്